നമ്മുടെ മലയാളഭാഷ സംസാരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ഒരു വിഷയം നമ്മൾ മലയാളമായിട്ട് ആണ് മലയാളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിള്ളേർക്ക് പഠിക്കാൻ ആണേലും സ്കൂളിൽ പഠിക്കാൻ ആണെങ്കിലും ഒരു വിഷയം മലയാളമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ പോയാലും മലയാളം വായിക്കാനും എഴുതാനും ഒന്നിനുമൊരു കുറവില്ല എന്നാന്നു വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പോലുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഇവിടെ സ്കൂളുകളിൽ നമ്മൾ കൊടുക്കാറുള്ളത് അതിനുള്ള ടീച്ചേഴ്സണ്ണേലും എല്ലാം എല്ലാ അധ്യാപകരും അതിന് വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ എഴുതിപ്പിക്കാനും പഠിപ്പിക്കാനും അതുകൂടാതെ അതുങ്ങൾ അവരുടെ ചിത്ര പടങ്ങളൊക്കെ വരച്ച് അവരെ അത് കാണിച്ച് ഇന്ന ഇതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കതക്ക രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കിട്ടി കൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവുമില്ല കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നുമുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയാലും നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുവാണ് നമുക്ക് അതു ഏത് സ്ഥലം ആണെന്ന് വായിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് മലയാളം പഠിച്ചിരിക്കണം ആ മലയാളം പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഫോം തന്നു അത് ഒന്ന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം അറിയാതെ നമുക്ക് അത് ഫിൽ ചെയ്യാൻ സാധിക്കത്തില്ല നമ്മൾ അതുകൊണ്ട് മലയാളഭാഷ അവിടെ പഠിപ്പിക്കുന്നത് നല്ല ഒരു രീതി ആണെന്നുള്ള കാര്യം നമുക്ക് ഒട്ടും നല്ല രീതി ആണെന്ന് നമുക്ക് പറയാം അതിനു മാറ്റമൊന്നുമില്ല നന്നായിട്ട് മലയാളത്തെ കുറിച്ചുള്ള ക്ലാസ്സ് കുഞ്ഞുങ്ങൾക്കും സംസാരിക്കുന്ന വലിയവർകാണേലും മലയാളഭാഷ സംസാരിക്കാൻ അറിയം സംസാരിക്കാൻ അറിയണം പക്ഷേ എഴുതാൻ അറിയാത്ത ഒത്തിരി പ്രായമുള്ളവർ ഉണ്ട് പക്ഷേ അവർ എല്ലാം നല്ല രീതിയിലാണ് ഈ മലയാളഭാഷയെ കാണുന്നത് മലയാളികളെയും കാണുന്നത് നല്ല രീതിയിൽ ആണ് എല്ലാ കാര്യത്തിലും മലയാളം മലയാളികൾ മുന്നിലാണ് ഓരോ പ്രവർത്തിയിലും മലയാളികളാണ് എല്ലാ കാര്യത്തിലും ഇപ്പോം വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആണേലും ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നത് ആരാണ് മലയാളികളാണ് ആ മലയാളഭാഷയിൽ സംസാരിക്കുന്നതിൽ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും മലയാളഭാഷ എന്നും നിലനിൽക്കും എന്നും നല്ലതാണ് എന്നും അതിന് വിജയമുണ്ടാക്കും